എൻ്റെ വീടിന് ചുറ്റും പരിസരങ്ങളും പ്രദേശങ്ങളും എല്ലാം വൃത്തിയായി സൂക്ഷിക്കാൻ ഞാൻ ചെയ്യുന്നതെന്താണെന്ന് വെച്ചാൽ മിഠായി കടലാസുകൾ ബാക്കി പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഞാനെല്ലാമൊര് വേസ്റ്റ് കൊട്ടയിലിടും ആ വേസ്റ്റ് കൊട്ടയിൽ നിറയുമ്പോൾ ഞാനത് ഏൽപ്പിക്കേണ്ട സ്ഥലത്ത് ഏൽപ്പിക്കും പരിസര സ്ഥലത്ത് ഞാൻ പ്ലാസ്റ്റിക് കവറുകളിടാറില്ല എൻ്റെ വീടും ഞാൻ അഴുക്കാക്കാറില്ല പാദങ്ങൾ കഴുകിയിട്ടാണ് ഞാനെൻ്റെ വീട്ടിൽ പ്രവേശിക്കാറ് എൻ്റെ കിടപ്പ് മുറിവരെ ഞാൻ വളരെ അധികം വൃത്തിയോടെയാണ് ഞാൻ സൂക്ഷിക്കാറ് പുറമേ നടക്കുമ്പോളും ഞാൻ മിഠായി കടലാസുകൾ അല്ലെങ്കിൽ സാധാ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പുറത്ത് കളയാറില്ല വേസ്റ്റ് കൊട്ടയോ അങ്ങനെയുള്ള വല്ല സാധനങ്ങളിൽ ഞാനെൻ്റെ വേസ്റ്റ് മാലിന്യങ്ങൾ അവിടെ നിക്ഷേപിക്കുകയുള്ളു ഇതൊക്കെയാണെൻ്റെ നടപടികൾ ഇങ്ങനെ ഒക്കെ എല്ലാവരും ചെയ്താൽ ഈ സമൂഹം വളരെ നല്ല സമൂഹമായിത്തീരും